ഹലോ ജിജി ഞാൻ ആതിരയാണ് ആ ജിജി അത് നമ്മുടെ വീട് അഞ്ച് വർഷമായല്ലോ പെയിൻ്റ് അടിച്ചിട്ട് അപ്പോൾ ഞാൻ ഒന്ന് പെയിൻ്റ് അടിക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കോസ്റ്റും കാര്യങ്ങളുമൊക്കെ എങ്ങനെ വരും എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ആ നമ്മുടെ ഇവിടെ മൂന്ന് മുറി മൂന്ന് ആ നമ്മൾ ഓരോ നമ്മൾ തീം ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇപ്പോൾ കിഡ്സിൻ്റെ മുറിയിൽ ഒരു കളറ് ഒരു പിങ്ക് ഷെയ്ഡൊക്കെ കൊടുത്തിട്ട് നമ്മൾ നമ്മളെ മാസ്റ്റർ ബെഡ്റൂമിൽ ഒരു വാളിൽ പിന്നെ ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ട് ചെയ്യാനായിരുന്നു അതെ നമുക്ക് കുറച്ച് നല്ല നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ളത് എടുക്കണം കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അടിച്ചത് പെട്ടെന്ന് പോകുക ഒക്കെ ചെയ്തല്ലോ പെട്ടെന്ന് ഇങ്ങനെ പൊളിഞ്ഞു പൊളിഞ്ഞ് വന്നു അപ്പോൾ നമുക്ക് കുറച്ച് നല്ല പുട്ടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇതുവരെ പുട്ടി ഇട്ടിട്ടില്ലല്ലോ അപ്പോൾ പുട്ടി ഇട്ടിട്ട് അടിക്കാമെന്ന് വിചാരിച്ചാണ്

ആ ഒക്കെ അധികം താമസിക്കുക വേണ്ട കാരണം നമുക്ക് എത്രയും വേഗം നമുക്ക് കുട്ടിയുടെ ബർത്ത്ഡേ ഫങ്ക്ഷൻ ഉണ്ട് അടുത്ത മാസത്തേക്ക് നമുക്ക് മോളുടെ ബർത്ത്ഡേ ഇവിടെ വച്ച് ആഘോഷിക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അതിനു മുമ്പേ നമുക്ക് ഇവിടെയെല്ലാം പെയിൻ്റിങ് വർക്കൊക്കെ കഴിക്കണം അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ചേച്ചി നാളെ തന്നെ വന്നിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് വേഗം വേഗം അങ്ങോട്ട് ചെയ്യാം ആ ഓക്കേ നാളെ തന്നെ നാളെ തന്നെ വരാൻ പറ്റുമെങ്കിൽ നല്ലതാണ് ആ ഒക്കെ ഒക്കെ ഒക്കെ ശരി ശരി ശരി ഒക്കെ നാളെ വരുമ്പോൾ കാണാം ആ സുഖമായിട്ടിരിക്കുന്നു അ ഒക്കെ ശരി എന്നാൽ ഒക്കെ